ചേച്ചി ആ ഇന്നലെ വിളിച്ചായിരുന്നു ഞങ്ങൾ പതിനയ്യായിരം ലിറ്ററിൻ്റ ടാങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ടാങ്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അത് വേറ ഒരു സൈറ്റിൽ രണ്ട് പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആണ് വൈകിയത് പിന്നെ പണിക്കാരെ കിട്ടാനും കുറച്ച് വൈകി എന്നാണ് എന്നാണ് പാൽ കാച്ചൽ ആ നമുക്ക് അതിന് ഉള്ളിൽ ശരിയാക്കാം ശരിയാക്കാം

ആ ഇത് അടുത്താഴ്ച അല്ലെ പാൽ കാച്ചൽ ഇത് ഒരു അഞ്ച് ദിവസത്തെ പണിയെ ഉണ്ടാവുള്ളൂ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ തീർത്ത് തരാം ആ ആ ഇല്ല ഇല്ല നമ്മൾ വാങ്ങിക്കോളാം നമുക്ക് അറിയുന്ന ഒരു ഏട്ടൻ്റ കട ഉണ്ട് ശിവദം ഹാർഡ്വെയറീന്ന് പറഞ്ഞിട്ട് ഒരു കട ഉണ്ട് അവിടുന്ന് വാങ്ങിക്കോളാം ഒരു രണ്ട് ലോഡ് സിമൻറ്റും മെറ്റലും അത് ആവശ്യം ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങീട്ട് അതിന്റെ ബില്ല് ഇവിടെ ഏൽപ്പിക്കാം ആ നിങ്ങൾ എത്ര ലിറ്ററിൻ്റ പതിനയ്യായിരത്തിൻ്റ അല്ലെ ലിറ്റർ പതിനയ്യായിരം ലിറ്ററിൻ്റ ടാങ്ക് അല്ലെ പറഞ്ഞത് ഇത് എവിടെ എവിടെ വീടിൻ്റ ഏത് ഭാഗത്ത് ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത് ആ ആ ആ ആ ആ ആ ആ ബാ ഈ ബാക്ക് സൈഡ് ഇല്ലെ ആ ഇവിടെ ഒന്ന് വെച്ചാൽ വേറ ആർക്കും ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലല്ലൊ അല്ലെ ആ ആ ആ ആ നമുക്ക് ഇങ്ങനെ ഈ സൈഡെക്ക് ഇങ്ങനെ ആ മതിലിനോട് ചേർത്തിട്ട് അങ്ങ് ഉണ്ടാക്കാം ആദ്യം എടിക്കാ അങ്ങനെ ഇറക്കിട്ട് ആ ഓ അത് മതി അത് മതി ഇവിടെ ഉള്ള മരങ്ങൾ ഒക്കെ എന്താ ചെയ്യണ്ടത് ഒരു സൈഡിന്ന് ഇപ്പം തേങ്ങ വല്ലതും വീഴോ ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒക്കെ ആ തെങ്ങ് ആവും പ്രശ്നം തെങ്ങിൻ്റ മേലെ തേങ്ങ വീണാ ആ ഉണ്ടാക്കിയ ഭാഗം ഒക്കെ ടാങ്ക് കേട് വരും അത് വേണമെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ ഇടണ്ടി വരും ആദ്യം തേങ്ങ എടുക്കേണ്ടി വരും അവിടുന്ന് ഇപ്പം ഉണ്ടാക്കിയ ശേഷം അത് വീട് പാൽ കാച്ചൽ നോക്കണ്ടല്ലൊ ആ ആ അത് ഒന്ന് അത് ഒന്ന് ആക്കി ഓ നാളത്തന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് നമ്മളെ ശിവദം ഹാർഡ്വെയറിന്ന് സാധങ്ങൾ ഒക്കെ വാങ്ങീട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കാം എങ്ങനെ ഒരു പത്ത് അമ്പതിനായിരം ഉർപ്യ ആവും ടാങ്ക് മാത്രം ഉണ്ടാക്കാൻ നമുക്ക് പണിക്കാർക്ക് സാലറി കൊടുക്കണം എല്ലാം ആവണല്ലൊ അപ്പം അതിൻ്റ ഒപ്പം തന്നെ നാലഞ്ച് പണിക്കാർ വരും അപ്പം കൊറക്കാന് നമുക്ക് നോക്കാം ചേച്ചി അഞ്ച് ദിവസം കൊണ്ട് തീർക്കും വേണ്ടെ അടുത്താഴ്ച വീടിൻ്റ പാൽ പാൽ കാച്ചൽ അല്ലെ

ആ അത് ശരിയാക്കാം ഞാനും ഉണ്ടാവും എൻ്റ ഒപ്പം ഒരു നാല് ആളും ഉണ്ടാവും പെട്ടെന്ന് തീർക്കാണല്ലൊ നമുക്ക് ശരിക്കും മൂന്ന് ആളെ വെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കണ്ട പണിയാണ് ഇത് ഇപ്പം അടുത്താഴ്ച വേണമെന്ന് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാണല്ലൊ

ആ ആ ആ ശരി ശരി നാളെ നമ്മൾ ഏയ് വേണ്ട വേണ്ട കഴിച്ചിട്ടാണ് വന്നത് നമ്മൾ ചായ കുടിച്ചിട്ടാണ് വന്നെ ആ ശരി ആ നാളെ നമ്മൾ ആ രാവിലെ നേരത്തെ എത്താം ആ ശരി ശരി